കുട്ടിക്കാലത്ത് കുറേ കളികൾ കളിച്ചിട്ടുണ്ട് ഒളിച്ചു കളിക്കുക കല്ല് കളിക്കുക കള്ളനും പോലീസും കളിക്കുക അങ്ങനെ അങ്ങനെ പല പല കളികൾ നമ്മൾ കളിച്ചിട്ടുണ്ട് അക്ക് ഓടിക്കളയും അതുപോലെ തന്നെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കഞ്ഞി ഒക്കെ വച്ച് കളിക്കുക അങ്ങനെ ഇരുന്നിട്ടൊക്കെ ആയിട്ട് ആയാലും എല്ലാവരും കൂടി വീടൊക്കെ ഉണ്ടാക്കി കളിക്കുക അങ്ങനെ പല പല കളികൾ ഒരു രസ നല്ല രസമായിരുന്നു അന്നത്തെ ആ ഒരു സമയത്തൊക്കെ ഇപ്പോൾ പിന്നെ എല്ലാവരും ഓരോ പഠിത്തം കാര്യങ്ങളുമൊക്കെ ആയിട്ട് എല്ലാവരും പല പല സ്ഥലത്തേക്ക് ആയതുകൊണ്ട് നമ്മൾക്ക് പണ്ടത്തേ കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ടും മിസ്സ് ചെയ്യുന്നു പിന്നെ അങ്ങനെ അതിൽ ഇങ്ങനെ നിയമങ്ങൾ അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം പോവാനൊക്കെയായിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ ഒക്കെ ഇരുന്ന് കളിക്കും രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഒക്കെ ഇരുന്ന് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കളിച്ചു കൊണ്ടിരിക്കും അതൊക്കെ ഒരു രസമായിരുന്നു അത് നമുക്ക് ഇപ്പം ഇപ്പം അത് ആലോചിമ്പോഴേക്കും അത് ഓരോരോ മെമറബിളായിട്ടുള്ള ഓരോ മൊമെൻസ് ആയിട്ട് നമുക്ക് അത്രയും അടിപൊളിയായിട്ട് പോണു അപ്പം അങ്ങനെ കുറേ ഫ്രണ്ട്സും ഉണ്ടായി നമുക്ക് കളിക്കാൻ ആയിട്ട് അങ്ങനെ ഒക്കെ നല്ല രസമായിരുന്നു കല്ല് കളിക്കാൻ ആയാലും ഓടി ചാടി അല്ലെ ഒളിച്ച് കളിക്കാനായാലും ഒരാൾ എണ്ണും ബാക്കിയുള്ളവരൊക്കെ ഒളിക്കും എന്നിട്ട് അയാൾ വന്ന് എല്ലാവരെയും ഇങ്ങനെ കണ്ടുപിടിക്കും അങ്ങനെ ഒക്കെ ആയിട്ട് കളികള് ഓരോന്നും നല്ല രസമയിരുന്നു